ബാല്യകാലത്ത് നല്ല രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് എന്നു പറഞ്ഞാൽ എനിക്കപ്പോൾ ഒന്നും അറിയേണ്ടതായ ആവശ്യമുണ്ടായിരുന്നില്ല വർക്ക് സ്ട്രെസ്സ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണു കൂടുതലും അതിനെയൊക്കെ അനുഭവപ്പെടുന്നത് എന്നു പറഞ്ഞാൽ ബാല്യകാലത്തു നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്ത സമയമായിരുന്നു ആ സമയത്തു നന്നായിട്ടു കളിച്ചും ചിരിച്ചും നടന്നൊരു സമയമായിരുന്നു നല്ല പോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി ലൈഫ് എന്താണെന്നുള്ളത് ആ ചെറുപ്പത്തിൽ തന്നെ നല്ല പോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാരണം എന്നു പറയുന്നത് എന്തൊക്കെയാണെന്നുവെച്ചു പറഞ്ഞാൽ ഒരുപാടിപ്പോൾ വലുതായിയെന്നു പറഞ്ഞാൽ നമുക്ക് കുറേ പ്രാരാബ്ധങ്ങളൊക്കെ ഉണ്ടാകും അത് അത് പിന്നെ നമ്മുടെ ലൈഫിൽ കൺട്ടിന്യുവസ്സായിട്ട് ഉണ്ടായിട്ടിരിക്കുന്നുണ്ടാകും ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഏറ്റവും ചെറുപ്പത്തിൽ കിട്ടാവുന്ന ഏറ്റവും മോമെൻറ്റ് ഏതാണെന്നു വെച്ചാൽ ചെറുപ്പത്തിൽ നല്ല ഒരു ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതി നമ്മുടെ സെ കുട്ടിക്കാലം തന്നെയല്ലെങ്കിൽ ബാല്യകാലം തന്നെയാണ് ബാല്യകാലത്ത് ഒരുപാടു സന്തോഷമുണ്ടായിരുന്നു സമാധാനമുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം വലുതായപ്പോൾ അതിൻ്റെതായ തിരക്കിലെല്ലാം പോയി അങ്ങനെ ഓർത്തു വെയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല പക്ഷെ ആ ഒരു രസകരമായിട്ടുള്ളൊരു ലൈഫ് തന്നെയായിരുന്നു ചെറുപ്പം ചെറുപ്പത്തിലുണ്ടായിരുന്നത്